എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയാഗ്രഹം എൻ്റെ മക്കളുടെ വിവാഹം നടത്തുകയെന്നുള്ളതാണ് അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ നടത്താറുണ്ട് ഇപ്പം അവർക്ക് പ്രായ പൂർത്തിയായി വരുന്നു അവരെ രണ്ട് രണ്ടു പേരുണ്ടനിക്ക് പെൺമക്കൾ രണ്ടു പേരേയും നല്ല രീതിയിൽ നമ്മൾ വിവാഹം കഴിച്ചയയ്ക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് നമ്മളെല്ലാവരും കാര്യങ്ങളും നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി വേണമെങ്കിൽ ഇപ്പം കല്ല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പെൺകുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കി വിടുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മളന്വേഷിക്കും നമുക്കേറ്റവും വലിയാഗ്രഹമാണ് അവരുടെ വിവാഹം നടത്തുകയെന്നുള്ളത് അവർ അവർ ആഗ്രഹിക്കുന്നതുപോലെ നമ്മളും ആഗ്രഹിക്കുന്നതുപോലെ തന്നെ നമ്മൾക്കൊരു അവർക്കൊരു ജീവിത പങ്കാളിയെ കൊടുക്കാൻ നമ്മളേറ്റവും എത്ര മംഗളമാക്കിയിട്ട് വരാൻ തീർക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കാറുള്ളത് പിന്നെ അവരുടെ ഇഷ്ടങ്ങളും നോക്കാറുണ്ട് കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കി വേണം നമ്മളെല്ലാ കാര്യങ്ങളും നോക്കാൻ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കുഞ്ഞുങ്ങളെ വിട്ടു കഴിഞ്ഞിട്ട് നാളെ അവർക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ അവർ പറയും നമ്മളെ കുറ്റപ്പെടുത്താനിടവരരുത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളവരോടും സംസാരിക്കാനുണ്ട് അവരുടേയും ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല കാര്യമല്ലേ നടക്കാൻ പോകുന്നത് അപ്പം അവരുമായിട്ട് നമ്മളൊത്തിരി എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയത്തിനു ശേഷം മാത്രമേ നമ്മൾ അവരെ അങ്ങനെ ഒരു വിവാഹത്തിലോട്ട് കടക്കത്തുള്ളു പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എത്ര നമ്മൾ ആഗ്രഹിച്ച് നല്ല രീതിയിൽ നടത്തി വിട്ടാലും നാളെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം ദൈവത്തിലർപ്പിച്ചുകൊണ്ട് മാത്രം നമ്മൾ നടക്കുക എന്നിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരുടെ വിവാഹം നടത്തുകയെന്നുള്ളത് അതല്ലാതെ നമുക്കിപ്പം വേറെ ഒന്നുമില്ല അവർ നല്ല രീതിയിൽ ജീവിച്ചു പോകുകയെന്നുള്ളതെ ഉള്ളു അവർക്ക് ഒത്തിരി പണമോ അല്ലെങ്കിൽ അതും നമുക്ക് അങ്ങനെയൊന്നുമല്ല നമ്മൾ നോക്കുന്നത് അവരെ സ്നേഹിക്കാൻ പറ്റിയ ഒരാളെ നമ്മളെപ്പോലെ തന്നെ ഉള്ള ആൾക്കാരെ നോക്കുക നമ്മളൊത്തിരി കൂടിയ ആൾക്കാർ അങ്ങനെയൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അവരെ സ്നേഹിക്കാൻ പറ്റത്തില്ലാത്തവരാണെങ്കിൽ പിന്നെ എന്നാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നാളെ നമ്മളതോർത്ത് പണമുള്ള പണം നോക്കി വല്ലവരുടെ വീട്ടിലോട്ട് വിട്ടിട്ട് നമ്മളവരെ കൂടുതൽ നമുക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ അതു പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മളേപ്പോലെയുള്ള നമ്മളേപ്പോലെയുള്ളവരെ വിട്ടിട്ടും സംഭവിക്കില്ല എന്നല്ല പക്ഷേ നമുക്കേറ്റവും ഇതായിട്ട് വരുന്നത് നമ്മൾ നടത്തുകയെന്നുള്ളതാണ് അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവരെ വിവാഹ കാര്യങ്ങൾ തന്നെയാണ് മംഗളമായിട്ട് തന്നെ നടത്തണം എല്ലാവരും അറിഞ്ഞു തന്നെ നടത്തണം നാളെ ഒരിക്കലും ഒരു മനുഷ്യൻ പറയരുത് നമ്മളാരുമറിയാതെ അങ്ങനെയൊന്നും പറയരുത് അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിൽ നമ്മളിപ്പം ഇപ്പോൾത്തന്നെ ആലോചിക്കുന്നുണ്ടല്ലോ കാര്യങ്ങളും നടത്തിവിടാനും നമുക്ക്

അവരുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ അവർക്ക് എന്തു നല്ല കാര്യം നടക്കുന്നതിനു മുമ്പ് എല്ലാവരേയും അറിയിക്കാറും ഉണ്ട് നമുക്കതല്ലേ സാധിക്കത്തുള്ളു അങ്ങനെയൊക്കെയുള്ളു കുഴപ്പമില്ലാതെ ജീവിക്കണം അങ്ങനെ ഉള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവരുടെ വിവാഹം നടത്തുക എന്നുള്ളതാണ് പിന്നീടുള്ള ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നതായതുകൊണ്ട് നമുക്കങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഏതവസ്ഥയിലാണെന്നോ എന്തൊക്കെ നടക്കുന്നുവെന്ന് നമുക്ക് നമ്മളിപ്പം വിവാഹം ഒരു നമ്മളെ നമ്മൾ നമ്മുടെ ആഗ്രഹംപോലെ നടത്തണമെന്ന് നമുക്കാഗ്രഹമുണ്ട് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമായതുകൊണ്ട് ദൈവനിശ്ചയം പോലെ വരട്ടെയെന്ന് മാത്രമേ ഞാനിപ്പം ആഗ്രഹിക്കുന്നുള്ളു അങ്ങനെ പറയാനല്ലെ നമുക്ക് കഴിയത്തുള്ളു മനുഷ്യൻ്റെ കാര്യമല്ലേ നമ്മളെത്ര ആലോചിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിനൊരു പദ്ധതിയുണ്ടല്ലോ അപ്പം ആ ഇതു വച്ച് മാത്രമേ നമുക്ക് പിള്ളേരെ ഇത് കാര്യങ്ങൾ നടത്താൻ നമുക്ക് പറ്റത്തുള്ളു അതുകൊണ്ട് എല്ലാം ദൈവത്തിലർപ്പിച്ചുകൊണ്ട് നല്ല മംഗളമായിട്ട് നടക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കണം